ആ പറഞ്ഞോളു മാം ആ അവൾ മിടുക്കി തന്നെ എല്ലാം പെട്ടെന്ന് പഠിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കളിക്കുന്നത് പിന്നെ ചില സമയങ്ങളിൽ പുള്ളിക്ക് മടിയൊക്കെ ഉണ്ട് ഓ അത് സാരമില്ല കുട്ടിയല്ലേ അവൾ നല്ല പോലെ കളിക്കുന്നുണ്ടല്ലോ പിന്നെ ഇവളാന്ന മറ്റ് കുട്ടികൾക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൾ ഡാൻസ്സ് പഠിയ്ക്കാൻ വല്ല്യ ആഗ്രഹം ആണെങ്കിലും സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കും എന്നൊക്കെയാണ് പറയാറ് അതേ അവൾക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട് നിരന്തരം പ്രാക്റ്റീസ് ചെയ്താൽ മതി നല്ല ഒരു ഡാൻസറാവാൻ അവൾക്ക് പറ്റും അതിന് എനിക്ക് സംശയൊന്നുമില്ല അവളുടെ ഡാൻസിന് ഡാൻസിനോടുള്ള താല്പര്യം അത് ഒരിക്കലും നഷ്ടപ്പെടരുത് ഓ അത് നല്ല കാര്യമാണ് പേരൻസിന്റെ കുഞ്ഞ് നാളിൽ കുട്ടികൾക്ക് കഴിവ് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് ആ അ ആ ഓക്കെ ഓക്കെ